ഏതെങ്കിലും ഒരുതരം മൃഗം വളർത്തുന്നത് ആയിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം ഉദാഹരണത്തിന് ആടെടുക്കുക ഇപ്പോൾ നമ്മൾ ആടു വളർത്താനാണ് തീരുമാനിച്ചതെങ്കിൽ ആദ്യമേ ചെന്ന് നമുക്ക് അതിനെ വളർത്താനുള്ള സൗകര്യമുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ആട് വിൽക്കുന്ന സ്ഥലത്തു ചെന്നിട്ട് ആടിനെ കുറിച്ച് അന്വേഷിക്കുന്നു എല്ലാം അന്വേഷിച്ചിട്ടും നമുക്ക് ഇപ്പോൾ തൃപ്തരായി എന്നു വെച്ചാൽ ഓക്കെ ആട് മേടിച്ചു നമ്മൾ തീരുമാനിച്ചു കഴിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കും ഏതൊക്കെ തരം ആളുകളുണ്ട് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് അതിൻ്റെയൊക്കെ എല്ലാ രീതികളും അന്വേഷിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരുതരം ഒരു പ്രസവത്തിൽ എത്ര കുട്ടികൾ വീതം

കയറി കിടക്കാനും പറ്റിയ വേറെ പ്രത്യേകിച്ച് കുറെ സ്ഥലം അതിനുണ്ടായിരിക്കേണ്ടതാണ് അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ചാക്കി നല്ല രീതിയിലായിരിക്കത്തില്ല പിന്നെ ആടിനെ വാങ്ങിച്ച ശേഷം ആടിനെ നോക്കാൻ വേണ്ടി ഒരു വെറ്റെനറി ഡോക്ടർ ഉണ്ടായിരിക്കേണ്ടതാണ് അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ സയ് സമയാ സമയം വന്ന് അന്വേഷിക്കുന്നതു നല്ലതായിരിക്കും കോ ആടിനു പ്രാധാന്യം കൊടുക്കുക എന്നു വെച്ചാൽ അല്ലെങ്കിൽ ഒരു ഇനം മാത്രം സെലക്റ്റ് ചെയ്യുക സെലക്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമെന്നു വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർക്കു തന്നെ അതിനെ പരിചരിക്കാനും നോക്കാനുമുള്ള ഒരു സൗകര്യത്തിനെ കൊണ്ടാണ് അല്ലാതെ ഒരു ഇനം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പുറത്തു നിന്ന് ഒരാളെ വെയ്ക്കുകയാണെങ്കിൽ അതു നമുക്ക് നഷ്ടമാണ് അതിനുവേണ്ടിയാണ് ഒരു ഇനം മാത്രം എടുത്തിട്ട് നമുക്ക് വീട്ടിലുള്ളവരാണ് വ്യക്തികൾ കൊണ്ടു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആദായം നമ്മുടെ വീട്ടുമു മൊ മൊത്തമായി നമുക്ക് കിട്ടും കാരണം പുറത്ത് ഇതിൻ്റെ ആദായം പുറത്തു പോകാത്തതുകൊണ്ട് നമുക്ക് അതൊരു ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുകയാണ് ആടിൻ്റെ പ്രധാനമായിട്ട് നമുക്കു കിട്ടുന്ന ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാല് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അധികവും ഇതിൻ്റെ ഉപയോഗം പാലിൻ്റെ ഉപയോഗമില്ലെങ്കിൽ പോലും അതെ നമുക്ക് പാലിന് വളരെ കുറച്ചിതെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ട് കൂടാതെ അതിൻ്റെ മാംസത്തിന് നല്ലൊരു ഇറച്ചിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല റേറ്റാണ് മറ്റും മാംസങ്ങളെ അപേക്ഷിച്ച് നമുക്കു കിട്ടുന്നത് പിന്നെ ആടിൻ്റെ ഗോ യൂറിനും അതിൻ്റെ കാഷ്ടവും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുക നല്ലതാണ് ഇങ്ങനെ ആടിനെ കൊണ്ടു പല രീതിയിലും നമുക്ക് ഉപയോഗങ്ങളുണ്ട് കൂടാതെ ഒരു ആടിൻ നമ്മളിപ്പം മേടിക്കുന്ന ഒന്നോ രണ്ടോ ആടായിരിക്കും മേടിക്കുന്നത് നമുക്ക് അതിൽ നിന്നു വലിയൊരു വരുമാനം മാത്രം മാർഗ്ഗവും ഉണ്ടാക്കാൻ സാധിക്കും ഒന്നിൽ നിന്നും ഒന്നിലധികം രണ്ടു മൂന്ന് അങ്ങനെ എത്ര തന്നെ ആട് പ്രസവിച്ച ശേഷം നമുക്ക് ആടുകളെ വിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആടുകളെ കശാപ്പിനു കൊടുക്കുന്നതു വഴിയാണ് നമുക്ക് ഇൻകം കൂടുതലും ഉണ്ടാകാൻ സഹായിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വെച്ചാൽ നമുക്ക് സ അതുവഴി നമുക്ക് നമ്മുടെ മാത്രം ഒരു കൃഷിയെടുത്ത് ഒരാടു മാത്രം നോക്കുന്നതു കൊണ്ട് സമയാ സമയങ്ങളിൽ നമുക്ക് അതിന് ഡോക്ടറുടെ ചികിത്സയ്ക്കും അല്ലെങ്കിൽ എല്ലാ രീതികളും അതിൻ്റെ എല്ലാ രീതികളും നമുക്ക് നല്ല രീതിയിൽ നോക്കാം ഒരു കുഞ്ഞിനെപ്പോലെ നോക്കുന്ന രീതിക്ക് നമുക്ക് അതിനെ നല്ല കെയർ കൊടുക്കാനും മറിച്ച് എല്ലാ രീതിയിൽ സഹായിക്കാനും നല്ല അതിനു തീറ്റ ആയിരുന്നാലും നല്ല രീതിക്ക് സമയാ സമയം കൊടുക്കാനും എല്ലാ തീക്കും നമുക്ക് അതിനെ ശ്രദ്ധ ശ്രദ്ധയൊടെ നോക്കാൻ സാധിക്കും പിന്നെ അങ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ആട് വളർത്തൽ മറ്റ് രീതിയിലുള്ളതെന്നു വെച്ചാൽ ഒന്നിലധികം ഇനങ്ങളുള്ള ഇനങ്ങൾ വളർത്തുന്നതു കൊണ്ടും അതു കുഴപ്പമില്ല പക്ഷെ അതിനാകുമ്പോൾ നമുക്ക് ജോലിക്കാരെ വെക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഇൻകം നമുക്ക് കുറയും അവടെ കാരണം ഒരു പകുതി ജോലി കൊടുക്കേണ്ടി വരും അങ്ങനെ ആയതു കൊണ്ടാണ് ഒന്ന് ഒരു കൃഷി ഒരു ഇനമാകുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാനും പറ്റും മൊത്തമായിട്ടാ ഇൻകം നമുക്ക് എടുക്കാനും പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമെന്നു പറയുന്നത് പിന്നെ നല്ലൊരു ഇൻകം നമുക്ക് സാധിക്കുക ആട് കൃഷിയിലൂടെ സാധിക്ക് കിട്ടുമെന്നു പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു